ഇന്നത്തെക്കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പം എല്ലാവർക്കും മലയാള ഭാഷ പണ്ടത്തെപ്പോലെയല്ല മലയാള ഭാഷ സംസാരിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് വലിയൊരു കാര്യമായിട്ടും മലയാളം സംസാരിക്കുന്നതൊരു കുറവായിട്ടാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത് അപ്പോ എല്ലാവരും മാക്സിമം ഇപ്പോൾ ഇംഗ്ലീഷിൽ ഓരോ സംഭവത്തിലൊക്കെ പോയി പഠിക്കുന്നു അതായത് ഇംഗ്ലീഷ് പഠിച്ച് അത് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനും അങ്ങനെ അല്ല പോകണം വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് ഒക്കെ ആവശ്യമാണ് നമുക്കിപ്പം വേറെ രാജ്യത്ത് പോവുകയാണെങ്കിലും ഏതു രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഷ അറിയുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അതായത് എന്തെങ്കിലും കാര്യമുണ്ടാവും പക്ഷേ നമ്മളിപ്പം മലയാളികൾ ആവുന്ന സമയത്ത് നമ്മൾ അതായത് ഒരു രണ്ടു പേര് കണ്ടു സംസാരിക്കുമ്പം ഏറ്റവും കൂടുതൽ മലയാളം സംസാരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കണത് പക്ഷേ കൂടുതലും എല്ലാവരും എന്താ പറയുക ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ മലയാളാണ് സംസാരിക്കാറ് ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കാറ് മലയാളത്തിൻ്റെ ഇടയിൽ അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെക്കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികൾ